എനിക്ക് കന്നുകാലികളുണ്ടെങ്കില് ജനിച്ച ഉടനേയുള്ള കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ ആ അമ്മയുടെ അതായത് കന്നുകാലിയുടെ അമ്മയുടെ പാല് കുടിക്കാൻ അനുവദിക്കും എന്നുള്ളതാണ് കുറച്ച് നാളത്തേക്ക് അമ്മയുടെ പാല് കറക്കാതിരിക്കുകയും അവയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം പാല് ആദ്യ പാല് കിട്ടുന്ന രീതീല് നന്നായി പാല് കൊടുക്കാൻ ശ്രമിക്കും പിന്നീട് വെറ്റിനറി ഡോക്ടർടെ എല്ലാ നിർദ്ദേശങ്ങളും പോയി അന്വേഷിച്ച് അതില് എങ്ങനെ പരിപാലിക്കണം എന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതിനുള്ള നടപടി ക്രമങ്ങൾ ഞാൻ ചെയ്യുന്നതാരിക്കും അതുപോലെ തന്നെ അമ്മയ്ക്ക് വേണ്ട ശുശ്രുഷയും കുഞ്ഞിന് വേണ്ട ശുശ്രുഷയും അവർക്ക് വേണ്ട പരിചരണവും എല്ലാം എല്ലാ സൗകര്യങ്ങളും ഒ ഒരുക്കിക്കൊടുക്കും ഒരുക്കി കൊടുക്കുന്നതാണ് കൂടാതെ എത്ര കാലം കഴിഞ്ഞിട്ടാണോ പാല് നമുക്ക് കറന്ന് എടുക്കാൻ കഴിയുന്നത് ആ കാലാവധിക്ക് ശേഷം മാത്രമേ ഞാൻ കറന്നെടുക്കാൻ എടുക്കുന്നുള്ളു കുട്ടിക്കാവശ്യമായ പാല് അമ്മ അമ്മയുടെ സ്തനത്തിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അധികം വരുന്ന പാല് എടുക്കുന്നുള്ളു അത് കൂടാതെ അമ്മ പാൽ ചുരത്തുന്നുണ്ടെങ്കിൽ കന്നുകാലിക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും പോഷകാഹാരങ്ങളും പുല്ലും വെള്ളവും എല്ലാം എത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു